ഓണം നമ്മളുടെ നാട്ടിൽ വലിയൊരു ഉത്സവമാണ് കേരളോത്സവം ഓണത്തിന് എല്ലാവരും രാവിലെ എണീക്കും അമ്പലത്തിലെല്ലാം പോയി ഒന്ന് പൂക്കളമൊക്കെ പറിച്ച് പൂ മുറ്റത്ത് നിറയെ പൂക്കളിടും എല്ലാവരും കൂടി ഒത്തു ചേർന്നിരുന്നു പൂക്കളിട്ടു പിന്നെ ചായ കുടിക്കും ഓണ സദ്യ ഉണ്ടാക്കും പത്തു പന്ത്രണ്ട് തരം കറിയും ചോറും എല്ലാം ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അത് വലിയൊരു ഉത്സവമാണ് നമുക്ക് പിന്നെ എല്ലാവരും വിരുന്നുകാരെല്ലാം കുറേ ഉണ്ടാകും ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്ക് നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകും വൈകുന്നേരം വീട്ടിൽ വന്ന് ആദ്യം എല്ലാവരും കൂടി നല്ല എല്ലാവരും കൂടി ഒത്തിരുന്ന് കളിച്ചും ചിരിച്ചും അന്ന ദിവസം ഓണം കഴിയും ഓണം വരുമ്പം പത്തു ദിവസം ഒരു മാസം നമുക്ക് ആഘോഷമാണ് രാവിലെ പൂ പറിക്കണം മുറ്റത്ത് പൂവിടണം പിന്നെ പത്ത് ഒരു മാസം പൂവിടണം മുറ്റത്ത് പിന്നെ അതല്ലാതെ നമുക്ക് പത്തു ദിവസം അതിനെക്കാട്ടിലും പ്രധാനമാണ് അത്തം പത്തോണമെന്നു പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇതാണ് പൂ പറിക്കുന്നതും പൂവിടുന്നതും അത്തപ്പാട്ട് പാടുന്നതും അതെല്ലാം ഭയങ്കര ഒര് ആഘോഷമായിട്ടു മാറുന്നു ഓണക്കോടി എടുക്കുന്നതും ടൗണിൽ പോയി എല്ലാവർക്കും ഓണക്കോടി എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നതും അതെല്ലാം വലിയൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടു വരുന്നു ഓണം വിഷു വിഷു പറഞ്ഞാൽ നമുക്ക് അതും ഒരു ഉത്സവം തന്നെ വിഷുവിന് എല്ലാവരും വെടി പൊട്ടിക്കലും മുറ്റം നിറയെ വിളക്ക് കത്തിച്ചു വെക്കലും വിഷുവിന് അതാണ് ഉണ്ണിയപ്പം ചുടൽ രാ സന്ധ്യക്ക് ചട്ടി വെച്ചിട്ട് എല്ലാവരും ഇരുന്ന് ഉണ്ണിയപ്പം ചുടും കണികാണാൻ രാവിലെ എല്ലാവരും കണി കാണാൻ വരും കണികാണാൻ വന്ന് എല്ലാവർക്കും കൈ നീട്ടം കൊടുക്കണം അതു നമുക്ക് എന്തെന്ന് കയ്യിൽ കാണാം നമുക്കെന്തു കഴിവുണ്ട് അതുപോലെ അപ്പായാലും പൈസ ആയാലും കൈനീട്ടം കൊടുക്കണം പണ്ട് കാലങ്ങളിലെല്ലാം നമ്മളെല്ലാം ചെറുത് ണ്ടാകുമ്പോൾ രാവിലെ എണീക്കും അഞ്ചു മണിക്ക് എണീറ്റു കുളിച്ചു പുതിയ ഡ്രസ്സിട്ട് എല്ലാ വീടു തോറും ഇങ്ങനെ പോയ്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ കൈ നീട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് ഇരുപത്തഞ്ച് പൈസ ആയാലും പത്തു പൈസ ആയാലും കിട്ടുമ്പോഴതു വലിയൊരു കാര്യമാ ഇപ്പോഴത്തെ കാലത്ത് പത്തു പൈസയും അഞ്ചു പൈസയും ഇരുപത്തഞ്ച് പൈസയെല്ലാം കിട്ടിയെങ്കിൽ അതൊന്നും വലിയ സംഗതിയല്ലല്ലോ ഇന്നത്തെക്കാലത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല പണ്ട് നമുക്കെല്ലാം എന്നു വെച്ചാൽ പണ്ട് ആ ഒരു ചക്കളിയും ആ ഒരു ഉണ്ണിയപ്പവുമെല്ലാം കിട്ടുന്നത് അത് വലിയൊരു സംഗതി തന്നേ ഒരു കൊട്ടയും പിടിച്ചു കൊണ്ട് പത്തു പിള്ളേർ പോകും എല്ലാ വീട്ടിലേക്കും കൈ കൈനീട്ടം കണി കണിയോയെന്നു പറഞ്ഞിട്ട് പോകും അന്നേരം ഓരോ വീട്ടിൽ നിന്ന് ചക്കിളിയും ഒരു വീട്ടിൽ നിന്ന് അപ്പം ഓരോരോ വീട്ടിൽ നിന്ന് പൈസ ഓരോരാൾ ഓരോന്നു തരും അതെല്ലാം വലിയൊരു അനുഭവമാണെന്ന് സന്തോഷമുള്ള കാര്യം ഇപ്പോഴത്തെ കാലത്ത് അതെല്ലാം ഒരു അനുഭവം സന്തോഷിക്കണ്ട ഓരോരോ കാര്യങ്ങൾ പണ്ടത്തെ കാലത്തെല്ലാം ഇപ്പോർക്കുമ്പം അതെല്ലാം ഒരു രസം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം അതിനെപ്പറ്റിയിട്ട് ഒന്നും അറിയില്ലല്ലോ ഉത്സവത്തെ പറ്റിയിട്ട് പിന്നെ വേറെ പിന്നെ വിഷുവായെങ്കിലും അങ്ങനെ സാ നെയ്യ്ച്ചോറുണ്ടാക്കും ചിക്കൻ കറിയാക്കും പായസമാക്കും വിഷുവിന് എല്ലാവരും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കും പിന്നെ നാട്ടിൽ പോകും നാട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് അതെല്ലാം വലിയൊരു ആഘോഷമല്ലേ ഓണമാണ് വലിയ ആഘോഷം നമുക്ക് പൂപ്പറിക്കുന്നതും പൂവിടുന്നതും എല്ലാം അതൊരു വലിയ ഒരാഘോഷാ പിന്നെ നമ്മൾ റെസിഡൻസിൻ്റെ ഓണക്കാലത്ത് ഈട പരിപാടിയുണ്ട് എല്ലാവർക്കും സദ്യയുണ്ടാക്കി നാട്ടിലുള്ളവരെല്ലാവരും വിളിച്ച് ഓണ സദ്യയെല്ലാം ഉണ്ടാക്കി എല്ലാവരും ഓണത്തിൻ്റെ ഭക്ഷണമെല്ലാം കഴിച്ച് ചോറും പത്തു തരം കറിയും പായസവുമെല്ലാം കഴിച്ചു പിന്നെ ഉച്ചക്ക് ശേഷം പരിപാടി എല്ലാവരും ഒത്തു കൂടിയിട്ട് വ വടം വലിയും വടം വലിയും പിന്നെ തിരുവാതിരക്കളി കസാലക്കളി ഇങ്ങനത്തെ കളിയെല്ലാം ഉണ്ടാകും കുഞ്ഞാൾ ബലൂൺ പൊട്ടിക്കൽ മുട്ടായി പെറുക്കൽ അങ്ങനെയെല്ലാം വലിയ വലിയവരുടെ കസാലക്കളി ഇതെല്ലാം ഒരു രസം ഓണത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം നമ്മൾ ഉണ്ടായെല്ലാ കാലം എല്ലാ കൊല്ലവും ഓണത്തിന് എല്ലാമന്നു പച്ചക്കറി മാത്രമേ ഉണ്ടാക്കലുള്ളൂ വേറെ മീനും ഇറച്ചിയൊന്നും ഉണ്ടാക്കലില്ല പച്ചക്കറി പത്തു തരം സാമ്പാർ കറി അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം വറവ് എലിശ്ശേരി പുളിശ്ശേരി അച്ചാർ വറവ് കിച്ചടി സാമ്പാർ പുളിശ്ശേരി അങ്ങനെ ഓരോരു തരം കറി പത്തു പതിനാറു തരം കറിയാക്കും ഇല വെച്ചു സദ്യ വിളമ്പും അതെല്ലാം ഒരു ആഘോഷം എല്ലാവരും ഇരുന്നിട്ട് ഒന്നിച്ച് കൂടിയും എല്ലാവരും വിളമ്പി പാട്ടു പാടി ആടി ആടിപ്പാടി കളിച്ചു രസിച്ച് അതെല്ലാം ഒരു ഓർമ്മ തന്നെ

നമുക്ക് അപ്പുറത്തിപ്പുറത്തു വീട്ടിൽ പോലി ഓണം വന്ന് എല്ലാവരും വന്നു അപ്പുറത്തിപ്പുറത്ത് എല്ലാവരും വന്നു മിണ്ടി പിന്നെ എവിടെയെങ്ങും പോയി വൈകുന്നേരമാകുമ്പോൾ കടപ്പുറം പോയി എല്ലാവരും പോയി കൂടെ ഒന്നിച്ച് പോയി യാത്ര പോയി തിരിച്ചു വന്നു പിന്നെ ആദ്യം ഒന്നിച്ചു കൂടി കളിച്ചു പിന്നെ വലിയൊരു സംഭവമല്ലേ ആഘോഷം ഓണത്തിന് ഒരു ഓണക്കോടിയെടുത്തില്ലായിരുന്നെങ്കിൽ അന്ന് ഭയങ്കരം ബേജാറായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഓണം വേരുന്നതെന്നു പറയുമ്പം തന്നെ പത്തു ദിവസത്തിനുള്ളിൽ മുപ്പട്ടെ ഓണക്കോടിയെല്ലാം എടുത്തു റെഡിയാക്കി പിന്നെ ഓണം വരാൻ വേണ്ടിയിട്ടു കാത്തിരിക്കും എപ്പോഴാ പുതിയ ഡ്രസ്സ് ഇടേണ്ടതെന്നു പറഞ്ഞിട്ട് ഇന്നില്ല കുട്ടികൾക്ക് അങ്ങനെയല്ല ഇപ്പം എപ്പോഴും പുതിയ ഡ്രസ്സ് തന്നെ അതുകൊണ്ട് ഇപ്പോഴത്തെ കുഞ്ഞൊക്കെ അതൊക്കെ വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ല അന്നെല്ലാം പണ്ടില്ല കാലത്ത് ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങണമെങ്കിൽ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ വാങ്ങണമെങ്കിൽ തന്നെ അതു വലിയൊരു സംഗതിയായിട്ടു തോന്നും ഡ്രസ്സ് ഇട്ട് ഓണം എപ്പം വരും എപ്പം വരുമെന്നാണ് ദിവസം എണ്ണി കാത്തിരിക്കും അന്ന് ഓണം വരുമ്പോൾ അന്ന് കുളിച്ച് ഡ്രസെല്ലാം ഇട്ട് അന്ന് കണി കാണാൻ പോകുകയെന്നല്ല ഓണത്തിന് പോകുന്നതെല്ലാം വലിയൊരു സംഭവം ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവർക്കും കാണിക്കുന്നതും ഓണക്കോടി ഓണക്കോടി വാങ്ങിച്ചിട്ട് എന്നെല്ലാവരോടും ചോദിക്കുന്നതും വലിയൊരു കാലമായിരുന്നു ഇനി ഇനി വരുന്ന കാലത്തിന് ഓണത്തിനൊന്നും വലിയൊരു ആഘോഷം ഇല്ല എന്നാലും കേരളീയർക്കു പ്രധാനം ഓണം തന്നെ ഓണത്തിന് എന്തില്ലെങ്കിലും അന്നെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എന്തില്ലെങ്കിലും ഒരു പായസം ചോറും വെച്ചിട്ടായാലും അന്ന് സദ്യ ഉണ്ണും ഇല വെച്ചിട്ട് അതു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ജീവിതത്തിൽ ഓർക്കാനുള്ള ഒരു കൊല്ലത്തേക്ക് നമ്മൾക്ക് ഉള്ളത് ഓണം മാത്രമാണ് ഓണത്തിനെക്കുറിച്ചിട്ട് പറയാൻ എന്നു വിചാരിച്ചാൽ എന്തെക്കൊയോ ഉണ്ട് എല്ലാവർക്കും അറിയാം അതു ഓണ സദ്യ ഓണക്കോടിയാണെന്ന് ഓണത്തിനു പറ്റിയിട്ടുള്ളത് ഓണം ഓണം കേരളത്തിൽ മാത്രമല്ല എല്ലാവർക്കും ഓണാഘോഷമാണ് ഓണം വലിയ പ്രധാനമാണ് വല്യേ ഒരു തല ഇതായിരിക്കും എല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലേ ഒരു സന്തോഷമുള്ള കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് എല്ലാവരും കൂടിയിട്ട് നമ്മളുടെ റെസിഡന്സിൻ്റെ അതിൽ ഇപ്പൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഓണത്തിന് എല്ലാവരും കൂടിയിട്ട് ഓണത്തിനു കളിക്കും ചിരിക്കും പൂക്കളം ഇടും പൂക്കള മത്സരമാക്കും പൂവിടും അതിനു ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയവർക്ക് സമ്മാനം കൊടുക്കും ചെറുതാണെങ്കിലും അത് വലിയൊരു സംഗതിയാന്ന് എല്ലാവർക്കും റെസിഡൻസിപ്പം അടുത്തായിട്ട് നമുക്കതു തുടങ്ങിയത് അപ്പം അത് ഓണം വരുമ്പോൾ നമ്മൾ അതെല്ലാവരും ഒത്തു കൂടിയിട്ട് അങ്ങനത്തൊരു പരിപാടിയുണ്ടാക്കും എല്ലാവരും ചെറിയ കുട്ടികളടക്കം വലിയവരടക്കം എല്ലാവരും അതിനെ പരിപാടിയിൽ പങ്കു ചേർന്ന് എല്ലാവരും നല്ല ഇതാക്കിയിട്ട് പിന്നെ രാത്രി ഗാനമേള അത് ഇതെല്ലാം ആക്കീ ഓണം ആഘോഷിച്ചിട്ട് എല്ലാവരും പോകും പൻ ഇപ്പോഴത്തെക്കാലത്ത് അങ്ങനത്തെയെല്ലാം ഒരു രീതി പണ്ടില്ലാത്തവർക്കൊന്നും അന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഓരോരോ ആൾക്കാർ ഓരോരോ ഇതു തുടങ്ങുമ്പോൾ അതു മുൻപോട്ടു കൊണ്ടു പോകുന്നുണ്ട് എങ്ങനെയാന്നുള്ള ഒര് ഇത് ആൾക്കാർക്കുണ്ട് അല്ല മുൻപെല്ലാവരും മടി പിടിച്ചിട്ട് ഏതു പരിപാടിക്കും കൂടാനോ ഒന്നൊന്നും ഇല്ല ഇപ്പം എല്ലാവരും മുൻപിൽ മുൻപിൽ ആ ഒരു മടി പോയിട്ട് എല്ലാവരും എന്തിന് എന്ത് ചെയ്യാനും കൂടെ കളിക്കാനും എല്ലാവർക്കും ഒരു രസം പണ്ട് നമുക്കത് കഴിയാത്തതു കൊണ്ട് ഇപ്പം അതു കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രസം മുൻപു നമുക്ക് ഡാൻസ് കളിക്കാനും കസാല കളി കളിക്കാനല്ലേ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോഴത്തെ പ്രായത്തിലെ ചെയ്യാൻ പറ്റുള്ളൂ അതു വലിയൊരു കാര്യമായിട്ട് തോന്നും അപ്പം ഓണം വിഷു ഇങ്ങനെയുള്ള ദിവസം വരുമ്പോൾ ഇങ്ങനത്തൊരു പരിപാടി വെച്ചു കഴിഞ്ഞെങ്കിൽ നമ്മളെല്ലാവരും അതിൽ പങ്കു ചേരും എല്ലാവരും ഒത്തു കളിച്ചു ചിരിച്ച് ആഘോഷിച്ചിട്ട് രാത്രി കാലങ്ങളിൽ പോകും ഗാനമേളയും പാട്ടും ഉത്സവമായി അങ്ങനെ പോകും ഇന്നെല്ലാവരും പണ്ട് വീട്ടിലിരുന്നവർക്കെല്ലാം ഇന്നു പുറത്തു പോയിട്ട് എല്ലാവരോടും ഒന്നിച്ചു കൂടാനും ആൾക്കാരായിട്ട് കുറച്ച് ഇതാക്കാനെല്ലാം നല്ലൊരു ഇത് മുമ്പെല്ലാവരും മടി പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് മടി എന്നു വെച്ച് ആൾക്കാരുമായിട്ട് കുറച്ചൊരു ഇതില്ല അപ്പം ഇങ്ങനെ ഒരോണം വിഷു വരുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വെച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് ആൾക്കാർ കൂടുകയും ചെയ്യും കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് എന്തെന്നു നമ്മൾക്ക് അറിയുകയും ചെയ്യും അപ്പോൾ ഓണാഘോഷമെല്ലാം വരുമ്പം ഇങ്ങനൊരു പരിപാടി വെച്ച് എല്ലാവരെയും നമ്മൾ കൂട്ടി എല്ലാവരും വിളിച്ച് ഇന്നപോലെ മത്സരമുണ്ട് എല്ലാവരും കൂടണം എല്ലാവരും സഹകരിക്കണം അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തിന് നമ്മളുടെ ഈടെ എല്ലാവരും ഇപ്പം ഒത്തു ചേരും അപ്പം നമുക്ക് അപ്പുറവും ഇപ്പുറവുമുള്ളവരെല്ലാം അറിയുന്നു അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരുപരിപാടി ചെയ്യണം കൂടണം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആൾക്കാരെ കൂട്ടും അപ്പം എല്ലാവർക്കും ഒരു ഇൻറ്ററെസ്റ്റ് അപ്പം അന്നു പരിപാടി വെക്കും ഡാൻസ് വെക്കും എല്ലാവരും വ വയസ്സിലാളായതും ഡാൻസ് കളിക്കും അപ്പം അതെല്ലാം വലിയ സന്തോഷമുള്ള കാര്യമല്ലേ ഉത്സവം ഇങ്ങനെയുള്ള ഒരു ഉത്സവത്തിനു നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇനിയും ഇനിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ എന്ന് കുട്ടികൾക്കായാലും അങ്ങനെയല്ലെ മുൻപിലത്തെ കുട്ടികൾക്ക് ഒന്നും കളിക്കണ്ട ഒരു ഇതുണ്ടായില്ല ഇപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാ സൗകര്യം ഉള്ളതു കൊണ്ട് എല്ലാ കാലം ആഘോഷം തന്നെ പണ്ടുള്ളവർക്കു മാത്രം ഓണം വിഷു വരുമ്പം മാത്രം ഉള്ളൊരാഘോഷം ഒരു പായസം എല്ലാം കുടിക്കണമെങ്കിൽ ഓണം വിഷു ആ വരുമ്പം അല്ലെ ഒരു കോഴിക്കറിയും ചോറെല്ലാം വെക്കല് ഇന്ന് അങ്ങനെയെല്ലാം അപ്പം അതൊരു വലിയൊരു ആഘോഷമായിട്ട് നമുക്ക് തോന്നും